നമ്മൾ ഓടുക അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക ആ മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് ഒരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യം അല്ല അതിൽ കുറേ കാലത്തെ പരിശ്രമവും കഠിനമായ വ്യായാമവും എല്ലാം ആവശ്യമുണ്ട് എന്നിരുന്നാൽ മാത്രമേ നമ്മൾക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ നമ്മൾക്ക് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഉസൈൻ ബോൾട്ട് അദ്ദേഹം ഒരു ദരിദ്ര രാജ്യത്തിൽ നിന്നും ദരിദ്ര കുടുംബത്തിൽ നിന്നും ജനിച്ച് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുന്നു അദ്ദേഹമാണ് നമ്മുടെ ഉത്തമ ഉദാഹരണം